ഹലോ ഇത് പാറയിൽ റസ്റ്റോറൻറ് റസ്റ്റോറൻറ് അല്ലേ അതെ അതെ അതെ ഞാൻ വിളിച്ചതേ അവിടെ നൈസ് പൊറോട്ടയും ബീഫ് കറിയും കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട് ഏ ഇതുവരെയും ഇതുവരെയും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങളുടെ വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് ഏ അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാനാണ് വിളിച്ചത് അപ്പം

ആ പന്ത്രണ്ട് രൂപയാണല്ലേ ആണ് ഓക്കെ ഓക്കെ ഓക്കെ നൈസ് പൊറോട്ട ആണോ നൈസ് പൊറോട്ട ആണോ പൊറോട്ട ആ ആ നൈസ് പൊറോട്ട നല്ല പൊറോട്ട ആണല്ലേ ആ അത് ശരി ആ ബീഫ് ബീഫിനകത്ത് നെയ്യൊക്കെ അതെ അതെ ആ ഓക്കെ ആ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഒരു നാല് പേർക്ക് കഴിക്കാനേ നാല് പേർക്ക് കഴിക്കാൻ രണ്ട് പേർക്കേ വേണ്ടി വരൂ അല്ലേ ഓക്കെ ഓക്കെ ഓക്കെ ആ എത്ര പൊറോട്ട വേണ്ടി വരും എത്ര പൊറോട്ട ഏകദേശം ആ ആ പത്ത് പൊറോട്ട അല്ലേ ആ അപ്പോൾ ഒരു കാര്യം ചെയ്യ് ഒരു പത്ത് നൈസ് പൊറോട്ടയും രണ്ട് ബീഫ് കറിയുമായിട്ട് വേണമായിരുന്നു കേട്ടോ ആ ആ ആ പിന്നെ ആ ആ കൊടുത്ത് വിടുവാണല്ലോ ആ ഇത് ആ ഞാനതിൻ്റെ പൈസ ഗൂഗിൾ പേ ചെയ്തോളാം കേട്ടോ ഗൂഗിൾ പേ ച് ചെയ്തോളാം കേട്ടോ ആ ആ ആ പിന്നെ ഈ ഈ പൊറോ ആ അതാണ് ഈ ചോദിക്കുന്നത് വേറെ ഇതിൻ്റെ കൂടെ എന്തുണ്ട് വേറെ സൈഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ അവിടെ വേറെ ആ ആ ആ ആ ആ അതുകൂടെ അല്ലേ ആ അത് ഞാൻ ഒരു ചിക്കൻ ആ ആ ഞങ്ങൾക്ക് സ സലാഡും വേണം ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവും വേണം പിന്നെ ഡ്രിങ്ക്സ് ഡ്രിങ്ക്സിന് എന്താണ് ഉള്ളത് അവിടെ കോളയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ ഓക്കെ അങ്ങനെയുണ്ട് അല്ലേ അപ്പോൾ അത് അത് ഒരു നാലെണ്ണം കൊടുത്തോ വിട്ടോ കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പോൾ ഒരു അപ്പോൾ ഒരു പത്ത് നൈസ് പൊറോട്ടയും രണ്ട് ബീഫ് കറിയും ഏ ആ ഒരു നാല് കോള ആ കോളയും ഏ ആ ആ പിന്നെ ഒരു പിന്നെ ചിക്കൻ ആ അത് അത് അത് അങ്ങനെയാണെങ്കിൽ ഒന്ന് മതി ഏ ആ അത് ആ അതുപോലെ തന്നെ ഒരു ഒരു ചിക്കൻ ഫോർട്ടി ഫൈവ് ഏ സിക്സ്റ്റി ഫൈവ് ഏ അത് ആ ഓക്കെ ഓക്കെ ഓക്കെ ആ അതിൻ്റെ കൂടെ ആ അതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഒരു സലാഡ് കൂടെ കേട്ടോ ഒരു സലാഡ് ഏ ഒരു വെജിറ്റബിൾ സലാഡ് വെജിറ്റബിൾ സലാഡ് ഏ കെട്ടോ ആ അപ്പോൾ ഞാൻ എം എപ്പോഴാണ് ആളെ വിടണോ ആളെ വിടണോ എത്തിച്ചേക്കാം അല്ലേ ഓക്കെ ഓക്കെ അപ്പം ആ അപ്പം ഞാൻ അതിന് പിന്നെ ആളെ ആളിനെ വിടേണ്ടല്ലോ അങ്ങോട്ട് ആ ആ അപ്പം പിന്നെ ആ നല്ല നല്ലതായിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് നിങ്ങളെ അതിനെക്കുറിച്ച് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് അപ്പം അത് രണ്ട് മൂന്ന് ഗസ്റ്റ് പ്രധാനപ്പെട്ട ആ അതുകൊണ്ടാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ നൈസ് പൊറോട്ടയെ കുറിച്ചും ചിക്കനെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒത്തിരി കേട്ടിട്ടുണ്ട് ഏ അപ്പം അതിതുവരെയും കഴിക്കാൻ പറ്റിയിട്ടില്ല അത് കഴിക്കാനുള്ള അവസരമാണ് അതുകൊണ്ട് ഏറ്റവും നല്ലത് കൊടുത്ത് വിടുക കേട്ടോ ഏ ആ അപ്പോൾ ആ അപ്പോൾ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഓക്കെ ഓക്കെ